ഗുഡ് മോർണിംഗ് ഹലോ ആ ഞാൻ ഇവിടെ വീട്ടിലേയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതായിരുന്നു എനിക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാനങ്ങളും ഇങ്ങനെ ഈ മിക്സി വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഫാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആ അതെ അതെ അതെ പുതിയൊരു ടൈപ്പ് എൻ്റെ വീട് ഇവിടെ പാലക്കാട് ഓരോ ഐറ്റം അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് കുഴപ്പമില്ല നമുക്ക് ആ ടി വി വേണം ടി വി വേണം നമുക്ക് ഒരു അമ്പതിഞ്ച് ആ അത്ര ആ റേഞ്ച് മതി അമ്പത് അമ്പതിഞ്ച് ആ ഓക്കേ ഓക്കേ അപ്പോൾ ആ യങ്ങ് അതു മതി അത് ഏതാ കമ്പിനി ഓക്കേ ഓക്കേ എങ്ങനെയാണ് അപ്പോൾ വേണ്ടത് ആ ഓക്കേ ഓക്കേ പിന്നെ

ഓക്കേ ഓക്കേ ഓക്കേ പിന്നേ എ സി അതൊക്കെ എങ്ങനെയാണ് ഓഫറുണ്ടോ എനിക്കങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഒരു ഇത്ര ആണെങ്കിൽ ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണം പിന്നെയും അത്യാവശം കറണ്ട് അധികം വലിക്കാത്ത അങ്ങനത്തെ ടൈപ്പ്

ഓക്കേ ഓക്കേ

പുതിയതായിട്ട് ഒര് രണ്ടു മൂന്നെണം ഓക്കേ മാക്സിമം രണ്ട് ആ ആ നമുക്ക് ഡബിൾ മതി ഡബിള് മറ്റേ പുതിയ ടൈപ്പില്ലേ

ഓക്കേ ഓക്കേ ഇതൊക്കെ മൊത്തം അവിടെ ഇൻസ്റ്റാള് ചെയ്ത് തരുമോ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി സെപ്പറേറ്റായിട്ട്

അതെ ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല

ഓക്കേ ശരി താങ്ക് യു